ഈ ഹാന്റ് പമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇപ്പം നമുക്ക് കുഴൽ കിണറാണ് പണ്ട് നാടുകളിൽ കാണപ്പെടുന്ന ഒരു സംഭവമാണ് ഈ ഹാന്റ് പമ്പ് ഹാന്റ് പമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൈ കൊണ്ട് പൊക്കിയും താഴ്ത്തിയും പൊക്കിയും താഴ്ത്തിയും അടിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തുകൂടി വെള്ളം വരും അതാണ് ഹാന്റ് പമ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴും ഒന്നും ഉണ്ടാകില്ല വേനൽക്കാലത്ത് വെള്ളം കുറവായിരിക്കും വറ്റി പോകുകയൊന്നുമില്ല പക്ഷേ കുറവാണ് അതെന്നു പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ആവശ്യമുള്ള വെള്ളം നമ്മൾക്ക് നമ്മൾ സ്വന്തം അടിച്ച് എടുക്കണതാണ് അതിൻ്റെ പ്രത്യേകത പിന്നെ എന്താ വച്ചാൽ അത് നമ്മൾക്ക് ആവശ്യമുള്ളപ്പം പോയി അടിക്കുക എടുക്കുക പൈപ്പോ അങ്ങനത്തെ ഒന്നും ഇടാൻ ഒന്നും പറ്റില്ല നമുക്ക് ഇപ്പോൾ വീട്ടിലേയ്ക്ക് പൈപ്പ് ഇടാനോ അങ്ങനത്തെ കാര്യത്തിന് ഒന്നും ഇത് പറ്റില്ല പിന്നെ പണ്ടുകാലത്ത് എന്ന് പറഞ്ഞു പറഞ്ഞാൽ ഭയക്കര ക്യൂ ആയിരിക്കും ഈ ആകെ ഈ ഒരു വെള്ളം മാത്രമേ ഉണ്ടാവുള്ളൂ ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ കർണ്ണാടകയിൽ ആണെങ്കിലും കേരളത്തിലാണെങ്കിലും ചില വരണ്ട പ്രദേശങ്ങളിലൊക്കെ ഈ ഒരു സംഭവത്തിൽ നിന്നാണ് എല്ലാവരും വെള്ളം എടുക്കുന്നത് ഇപ്പോൾ ഒരാൾ എടുത്തതിനു ശേഷം മാത്രമാണ് അടുത്ത ആൾ എടുക്കാൻ പറ്റുള്ളൂ ഒരു കുടത്തിലായിരിക്കും എല്ലാവരും കൂടുതൽ എടുക്കുക ഒരാൾ ചിലപ്പോൾ രണ്ടു കുടത്തിൽ എടുത്തിട്ട് പോവും ആ വെള്ളം കൊണ്ടാണ് അവർ കുളിക്കുന്നതും പല്ലുതേക്കുന്നതും ഭക്ഷണം പാകംചെയ്യുന്നതും എല്ലാം ഈ വെള്ളത്തിൽ നിന്ന് തന്നെയാണ് മെയിൻ ആയിട്ട് ക്യൂ അനുഭവിച്ചിട്ടുണ്ട് അതായത് ഇപ്പം നമ്മൾ കുറേ നിന്നിട്ടു വേണം കുറച്ച് വെള്ളമെടുത്തിട്ടു വേണമെങ്കിൽ വരാൻ അതും കുറച്ചു സമയമെടുക്കും ഇതും നമ്മളിങ്ങനെ കൈകൊണ്ട് അടിച്ച് അടിച്ച് അടിച്ച് മേലോട്ട് കയറി ആ വെള്ളമാണ് താഴോട്ട് വരുന്നത് വേനൽക്കാലത്ത് വരണ്ട് പോകില്ല പക്ഷെ വെള്ളം കുറവായിരിക്കും വെള്ളത്തിന് കുറച്ച് ഒരു കറുത്ത കളറൊക്കെ വരും കാരണമെന്താ വച്ചാൽ വെയിൽ കൊണ്ടിട്ട് കുറേ ബാഷ്പീകരിച്ച് പോകുമല്ലോ അപ്പോൾ ആ ഒരു പ്രശ്ന മുണ്ട് വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ലതാണ്